ആ അതെയല്ലോ മേഡം പറയൂ വെജിറ്റബൾസാണോ എവിടെയാണ് സ്ഥലം വയനാടോ ആ വയനാട് എവിടെയായിട്ടാണ് വരിക ആ അഞ്ചാം തീയതി അല്ലേ ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് മേഡം റേയ്റ്റ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു മുപ്പത്തെട്ട് രൂപയ്ക്കും നാല്പതു രൂപയ്ക്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് രണ്ടു രൂപ മൂന്ന് രൂപ ഒക്കെ കൂട്ടി ആണ് എടുക്കാറ് പിന്നെ നമ്മൾ ഡിസ്കൗണ്ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം അഞ്ച് കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനു അതിന്റേതായ ഡിസ്കൗണ്ട് നമ്മൾ കുറച്ച് തരുന്നുണ്ട്

ഉള്ളിക്ക് മുപ്പത്തെട്ട് രൂപ ആണ് മാർക്കറ്റിൽ എന്നാൽ ഇവിടെ കൊടുക്കുന്നത് എന്നു പറഞ്ഞാൽ നാല്പത്തിരണ്ട് രൂപയ്ക്കാണ് ആക്ച്വലി നാല് രൂപ കൂടുതലാണ് പിന്നെ അഞ്ച് കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാ സെയിം റേറ്റിൽ മുപ്പത്തെട്ട് രൂപയ്ക്ക് തന്നെ തരുന്നുണ്ട് ആ ഫ്രെഷ് ആയിരിക്കും മേഡം ഓക്കേ ഓക്കേ സദ്യ ആണോ മേഡം ആ ഓക്കേ മാഡം ഒന്നുകൂടി വിളിച്ചാൽമതി ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ പിക്ക് ഇട്ടു തരുകയോ അല്ലെങ്കിൽ മാഡം ഇവിടെ വിളിച്ചാലും മതി അഞ്ചാം തീയതി അല്ലേ ആ എന്നാണ് ഫംഗ്ഷൻ ശരിക്കും ആറാം തീയതി ആണോ അതോ അഞ്ചാം തീയതി ആണോ ഫംഗ്ഷൻ അഞ്ചാം തീയതി ഓക്കേ ഓക്കേ ആ നമ്മളിപ്പോൾ കോഴിക്കോട് നിന്നാണ് സാധനം കൊണ്ടുവരുന്നത് ആക്ച്വലി അഞ്ചാം തീയതി ആ അഞ്ചാം തീയതി ആ ഞങ്ങളവിടെ വരുമ്പോൾ മാഡം ഒന്നു വിളിച്ചാൽ മതി ഞങ്ങൾക്ക് കറെക്റ്റ് പ്ലേസ് അറിയില്ല അല്ലെങ്കിൽ ലൊക്കേഷൻ ആ ഓക്കേ മേഡം ഓ അഞ്ചാം തീയതി വേറെ എന്തൊക്കെയാണ് വേണ്ടത് ആ വെജിറ്റബൾസ് ആ ആ നോൺവെജ് ഇല്ല അപ്പോൾ എല്ലാം ഒരു അഞ്ച് കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഡിസ്കൗണ്ട്സ് തരുന്നുണ്ട് അപ്പോൾ പിന്നെ അഞ്ച് കിലോ കഴിഞ്ഞ് പത്തു കിലോ ആണെങ്കിൽ കുറച്ച് കൂടി ഡിസ്കൗണ്ട് തരും അങ്ങനെ മൊത്തം എടുക്കുന്ന എത്രയാണോ അതിനനുസരിച്ച് അതിൻ്റെതായ ഡിസ്കൗണ്ട്സ് തരുന്നുണ്ട് ഓക്കേ ഓക്കേ

ആ ഓക്കേ ആ ഓക്കേ ഓക്കേ എന്നാൽ ശരി ഓക്കേ ഓക്കേ